എൻ്റെ വീടിനടുത്തോ ഇപ്പം ഞാൻ താമസിക്കുന്ന സ്ഥലത്തോ ഒന്നും പുസ്തകശാല ഇല്ല പക്ഷേ എനിക്ക് പുസ്തകങ്ങളും വായിക്കാനൊക്കെ ഇഷ്ടമാണ് പക്ഷേ എനിക്ക് പലപ്പോഴും വായിക്കാനിയിട്ടങ്ങനെ അത്രയും സമയം കിട്ടാറില്ല പിന്നെ ഏതുതരം പുസ്തകങ്ങളാണ് വായിക്കാനിഷ്ടം എന്ന് ചോദിച്ചാൽ എനിക്ക് കൂടുതലും കഥകളൊക്കെ തന്നെ വായിക്കാനാണിഷ്ടം പിന്നെ കവിത കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇടയ്ക്കൊക്കെ വായിക്കാറുണ്ട് പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടെ താല്പര്യം തോന്നുന്നത് ഇങ്ങനെത്തെ കഥകൾക്ക് മാത്രം തന്നെയാണ് പിന്നെ ബെന്യാമിൻ്റെ ആടുജീവിതം മറിയാമ്മ നാടകം ഇങ്ങനെത്തെ അങ്ങനെത്തെ ചില ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഇഷ്ടമാണ്